നിയമപരമായ പ്രശ്നങ്ങളോ ഭൂമി സംബന്ധമായ തർക്കങ്ങളോ വരുമ്പോൾ ഞാൻ ഒരു വക്കീലിനെ ആണ് ബന്ധപ്പെടാറ് പൊതുവെ അവർ നമ്മളോട് അഭിപ്രായങ്ങൾ പറഞ്ഞു തരുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് തരുകയും ചെയ്യും പിന്നീട് വേ വായ്പ്പകൾ തുടങ്ങിയ നിയമപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നമ്മൾ ഫിനാൻസ് മാനേജർമാരെയോ അല്ലെങ്കിൽ വക്കീൽമാരെയോ തന്നെ ബന്ധപ്പെടുന്നതാണ് ഇവർക്ക് രണ്ടുപേർക്കും പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞതിലെല്ലാം ഉള്ളൂ